കൃഷിയിടത്തിൽ എത്ര സമയമാ ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഒരു ഒന്ന് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനടുത്ത് ചിലവഴിക്കും അതിന് വെള്ളം നനക്കണം പിന്നെ പുഴു പോലെയുള്ള ജീവികൾ വരുന്നത് അതെല്ലാം ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാം നോക്കി ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റടുത്ത് രാവിലെ ചിലവഴിക്കും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം അങ്ങനെ തന്നെ ആ വെള്ളം നനക്കണം ആ പിന്നെ അങ്ങനെ തന്നെ ഒരു ഒന്നര മണിക്കൂർ വൈകുന്നേരം അതിൽ ചിലവഴിക്കും പിന്നെ അതിന് തടമെടുത്ത് അങ്ങനെ ചെറു അങ്ങനെ ഓരോ കാര്യങ്ങൾചെയ്യണം തട എടുക്കണോ പിന്നെ വെള്ളം നനക്കണോ അങ്ങനെ അതിനെ അതിനെ ശ്രദ്ധിക്കണം കായ്കള് വരുന്നുണ്ടോന്ന് നോക്കണം കയ്കളെല്ലാം ഈച്ചയെല്ലാം കൊത്തുന്നതിന് എന്തെങ്കിലും പൊതിഞ്ഞ് വക്കണം അങ്ങനെയുള്ള ചെയ്യുന്നുണ്ട് പിന്നെ ആരോഗ്യപരമായിട്ട് എങ്ങനെയാണ് ഉപകരായോന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും ജൈവ പച്ചക്കറിയാകുമ്പം നമുക്ക് ആരോഗ്യത്തിന് തന്നെ നല്ലതല്ലേ വിഷംശോന്നുമില്ലാണ്ട് ചെയ്യുന്ന ആക്കുന്ന പച്ചക്കറിയാകുമ്പോൾ നമുക്കത് ഉപകാരമായിട്ടും ആരോഗ്യത്തിനും നല്ലതായിട്ടല്ലേ വരൂ അങ്ങനെ വിഷാംശോന്നുല്ലാല്ലോ കടകളിന്ന് വാങ്ങുന്നത് വിഷാംശം ഉള്ളതാന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഷാംശം ഇല്ലാ അത്കൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ട് നല്ലത് തന്നെയാന്ന്